ഹലോ ആ സ്പീക്കിങ് ആഹാ വെൽക്കം

വെരി ഗുഡ് താങ്കളുടെ പുതിയ ഫുൾ നെയിം ഫുൾ ഫുൾ നെയിമൊന്നു പറയാമോ ഓ തോമസേ വെൽക്കം ഓക്കേ ആ ഹാ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഡയ് റബ്ബറുമായിട്ട് ഒരു അൻപത് കൊല്ലമായിട്ടുള്ള ഡീലിങ്സുണ്ട് നമ്മുടെ നമ്മുടെ ഫേമിന് അപ്പം നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ കാഞ്ഞിരപ്പള്ളി ബേസ്ഡാണ് ആ ഓക്കെ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ത്യയിൽ നമ്മൾ നാലാം സ്ഥാനത്താണ് നമ്മൾ സീ ആ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന ഓക്കെ അതിൽ തൊണ്ണൂറ് ശതമാനവും കേരളത്ത് കേരളത്തിൽ നിന്നാണ് വരുന്നത് അപ്പം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കേ യേസ് യെസ് യെസ് നമുക്ക് നമ്മുടെ അവ് നമ്മുടെ അവിടെ ഒത്തിരി നേഴ്സറികളുണ്ട് നമ്മുടെ ഗവൺമെൻറ്റ് സ്പോൺസേർഡ് എല്ലാം ഒത്തിരി നേഴ്സറികളുണ്ട് ഹൈബ്രിഡ് തൈ തൈകളാണ് ഇതിൻറ്റേ ഇതതൻ ഇത് തന്നെ നമുക്ക് പിന്നെ ബൾക്കായിട്ടുള്ള അല്ലാതെ അവൈലബിളാണ് താങ്കളിവിടെ സ്ഥലവും ലാൻഡ് നോക്കുന്നുണ്ടോ ഇവിടെ ലീസിനാണോ നോക്കുന്നത് ഓക്കെ അപ്പം താങ്കളുടെ സ്റ്റേ സ്റ്റേയെത്ര ഇവിടെയുണ്ടാകും എത്ര നാളിവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മ് ആദ്യത്തെ ആദ്യ സ്റ്റെപ്പാണ് ഓക്കെ ഓ ഓ തീർച്ചയായിട്ടും ശ്രീലങ്കയും നമ്മുടെ കേരളവും കാലാവസ്ഥപരമായിട്ടൊക്കെ അനുകൂലമാണ് ആ ആ അപ്പം അതു കൊണ്ട് ആ അതു കൊണ്ട് റബ്ബർ ഉൽപ്പാദനത്തിനിത് നമ്മുടെ ഇതിത് നമ്മളോടു തന്നെ നിങ്ങളോടൊരു പുതിയ പരീക്ഷണമാണോ അതോ അവിടെയുണ്ടോ അവിടെ റബ്ബർ പ്ലാൻറ്റേഷൻസുണ്ടോ തുടങ്ങിയിട്ടുണ്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഓ ഓക്കേ ഓക്കെ അപ്പം തീർച്ചയായിട്ടും വെൽക്കം തോമസ് അപ്പം നിങ്ങൾ വന്ന് ഒരു മാസം പഠിക്കുക ഒരു മാസം കൂടെപ്പോരുക അത് വിളവെടുപ്പിൻ്റെ പല പല മേഖലകൾ നിങ്ങൾ ആ ഇല നിങ്ങൾ നിങ്ങളിവിടെ ഇടക്കിടയ്ക്ക് വിസിറ്റ് നടത്തണം നടത്തി നമുക്ക് നമുക്ക് രണ്ടും അനുകൂലമായ ഫാക്റ്ററികളും അനുകൂലമായ തൊഴിലാളികളും അനുകൂലമായ പ്രൊഡക്റ്റ്സുകളുമുണ്ട് അപ്പം പല പല പ്രൊഡക്റ്റ്സ് നമുക്കിവിടെ എസ്പോർട്ട്സുണ്ട് പല വേൾഡിൽ പലയിടത്തേയ്ക്കും നമ്മുടെ കമ്പനിയിൽ നിന്നും സാധനം പോകുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പരീക്ഷണഘട്ടത്തിൽ ഇവിടെ താമസിക്കാമെങ്കിൽ താമസിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ തൈകൾ ബഡ് തൈകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സ്പോട്ട് ചെയ്ത് അങ്ങോട്ടു തരാം കപ്പലിൽ കയറ്റി ഇറക്കിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ പരീക്ഷണഘട്ടത്തിൽ ഒരേക്കറോ രണ്ടേക്കറോ നിന്നും വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഈ പുതിയ ഉദ്യമം തീർച്ചയായിട്ടും നല്ലതായിരിക്കും നിങ്ങൾ അപ്പം എപ്പം എപ്പം നമുക്ക് കാണാം അപ്പം ശരി ഞാൻ അടുത്തയാഴ്ച്ച ഫ്രീയാണ് തോമസ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് കാണാം ഓക്കെ ഓക്കെ ഓക്കെ എന്നെ വിളിച്ചിട്ട് നേരത്തെ വരാം താങ്ക് യൂ